ഒരു പാട്ടിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടാവും പാടാൻ അപ്പോൾ ആ നോട്ട്സിൽ കൊണ്ടുവരുന്ന ഒരു വേരിയേഷനെ ആണ് ഞാൻ ഡയനാമിക്സ് എന്നു പറയുന്നത് അതായത് ഒരു പാട്ടെടുത്താൽ അതിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടാകും ആ നോട്ട്സ് എല്ലാം കൂടെ ചേർന്നാണ് ഒരു പാട്ട് ഉണ്ടാകുന്നത് തന്നെ അപ്പം ആ നോട്ട്സിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷനെ നമ്മൾ കൊടുക്കുന്ന വേരിയേഷനെ ആണ് ഡയനാമിക്സ് എന്ന് പറയുന്നത് അതായത് ഏത് നോട്ടിൽ സൌണ്ട് കൂട്ടണം ഏത് നോട്ടിൽ സൌണ്ട് കുറയ്ക്കണം എന്നൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടിൻ്റെ അർഥമറിഞ്ഞ് കുറച്ച് ഫീൽ കൊണ്ടു വരുമ്പോഴാണ് ആ ഒരു പാട്ടിൽ ഡയനാമിക്സ് ഉണ്ടാവുക അതായത് പാട്ടിൽ ഇമോഷൻ എക്സ്പ്രെസ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയായിട്ടാണ് ഞാൻ ഡയനാമിക്സിനെ കാണുന്നത് നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ നിന്ന് സന്തോഷവും സങ്കടവും അറിയാൻ പറ്റുന്ന ഒരു വഴി കൂടെയാണ് ഡയനാമിക്സ് സാധാരണ ഒരു പാട്ടിൽ കുറച്ച് എക്സ്പ്രെഷനും ഡയനാമിക്സും കൂടെ കൂട്ടി ചേർന്നാൽ നമുക്ക് ആ പാട്ടിൻ്റെ ഇമോഷൻ എന്താണെന്ന് അറിയാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ മാടമ്പി എന്നുള്ള ഒരു സിനിമയിൽ അമ്മമഴക്കാറിന് എന്ന ഒരു പാട്ടുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു വിങ്ങലാണ് ആ പാട്ട് ഒരിക്കലും നമുക്ക് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കേട്ടിരിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഡയനാമിക്സ് കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ചിരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയോ ആ പാട്ട് പാടാനും കഴിയില്ല കാരണം അതിലുള്ളതൊരു സങ്കടത്തിൻ്റെ ഡയനാമിക്സാണ് അതുപോലെ തന്നെ സന്തോഷം വരുന്നതും റൊമാന്റിക് സോങ്ങ്സിനും എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഡയനാമിക്സാണുള്ളത് അതുപോലെ തന്നെയാണ് പാട്ടിൻ്റെ വരികൾക്കും ഡയനാമിക്സിനും ഒരു വലിയ പങ്കുണ്ട് ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇന്റർറിലേറ്റഡ് എന്നു പറയാം അതായത് വേദന നിറഞ്ഞ വരികളാണ് ആ ഒരു പാട്ടിന് ഉള്ളത് എങ്കിൽ ആ വരികൾക്ക് സന്തോഷത്തിൻ്റെ ഡയനാമിക്സ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്താൽ തന്നെ ആ ഒരു പാട്ടിന് അർഥമില്ലാതായിപ്പോകും ഞാനെപ്പോഴും പാട്ടിൻ്റെ വരികളും അതിൻ്റെ ഇമോഷൻസും എല്ലാമറിഞ്ഞാണ് എൻ്റെ പാട്ടിൽ ഞാൻ ഡയനാമിക്സ് കൊണ്ടുവരാറുള്ളത്